ഉപഭോക്താക്കൾക്ക് നല്ല രീതിയിൽ മൃഗങ്ങളെ പരിപാലിക്കാൻ കഴിയും അതുപോലെ ഗവൺമെൻ്റ് ഭാഗത്ത് നിന്നാണേലും ഒത്തിരി സഹായങ്ങളും ചെറുകിട കർഷകർക്കും ഉണ്ട് മൃഗങ്ങളെ മൃഗപരിപാലനത്തിനും എല്ലാമായിട്ട് മൃഗങ്ങൾക്ക് ഇൻഷ്യുറൻസ് ഉണ്ട് അതുപോലെ പഞ്ചായത്തിൽ നിന്നും മറ്റുമൊക്കെ കോഴികളെ വിതരണം ചെയ്യുന്നുണ്ട് അതുപോലെ ചെറുകിട ആൾക്കാർക്ക് ജീവിക്കാൻ ഒരുപാട് സാഹചര്യങ്ങൾ മൃഗം മൃഗങ്ങളെ കൊണ്ട് ഉണ്ട് അതുപോലെ ലോണ് ലോൺ കിട്ടുന്നുണ്ട് കുറഞ്ഞ പലിശ നിരക്കിൽ ലോണ് അതുപോലെ ഇതിൻ്റെ സബ്സിഡി കാര്യങ്ങൾ എല്ലാം ഉണ്ട് പഞ്ചായത്ത് തലങ്ങളിലാണ് മൃഗങ്ങളെയൊക്കെ അവർ ചെറു കർഷകർക്ക് വിതരണം ചെയ്ത് കൊടുക്കുന്നുണ്ട് കോഴിയെ കൊടുക്കുന്നുണ്ട് പശുവിനെ കൊടുക്കുന്നുണ്ട് ആടിനെ കൊടുക്കുന്നുണ്ട് അങ്ങനെ പല ഇതുണ്ട് എനിക്ക് ഞാൻ ആടിനെ വളർത്തി കൊണ്ട് ഇരുന്നതാണ് ഒരു ആടിനെ നിങ്ങൾ നമ്മൾ സ്നേഹിക്കുന്നത് അനുസരിച്ച് അതുങ്ങൾ നമ്മളെ ഇതായിട്ട് നിൽക്കും അതുപോലെ അതിങ്ങൾക്ക് ആവശ്യമുള്ള തീറ്റകൾ കൊടുക്കുക സമയത്ത് ഭക്ഷണം തീറ്റ കൊടുക്കാൻ അങ്ങനെ നിന്നാൽ മതി ആട് നല്ല സ്നേഹമായിട്ട് വളർത്തുന്നത് വളർത്താൻ പറ്റുന്ന ഒരു ഇതാണ് ആട് പശുവാണെങ്കിലും അതുപോലെ തന്നെ പശു ഒത്തിരി എന്താണ് പശുവിനെ ആണെങ്കിലും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതുണ്ട് പാല് വളർത്തി ജീവിക്കാം പാല് കൊടുത്ത് ജീവിക്കാം അതുപോലെ തന്നെ കോഴിയാണേ മുട്ട കൊടുത്ത് ജീവിക്കാം അതുപോലെ കർഷകരെ സഹായിക്കാൻ ഒരുപാട് സർക്കാർ പദ്ധതികൾ ഉണ്ട് സർക്കാരിൽ നിന്ന് ഒരുപാട് ആനുകുല്യങ്ങളും അവർക്ക് ലഭിക്കുന്നതായിരിക്കും മൃഗങ്ങളെ നമ്മൾ നല്ല രീതിയിൽ സംരക്ഷിക്കണം സംരക്ഷിച്ചാൽ മാത്രമേ അതിൽ നിന്നുള്ള ഫലം നമുക്ക് ലഭിക്കാൻ പറ്റത്തുള്ളൂ മൃഗങ്ങളെ എന്നും സ്നേഹം അഴിച്ചു കെട്ടുകയും കൂട് വൃത്തിയാക്കുകയുമയൊക്കെ ചെയ്യണം അല്ലേ അതിങ്ങൾക്ക് പല തരത്തിലുള്ള അസുഖങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും സാ മൃഗങ്ങളുടെ ഉല്പന്നങ്ങളൊക്കെ ചെറുകർഷകരെ ഒത്തിരി രീതിയിൽ സർക്കാർ സഹായിക്കുന്നുണ്ട് സബ്സിഡി തരത്തിലും മൃഗങ്ങൾക്ക് ഇൻഷുറൻസ് എന്തെങ്കിലും രോഗം വന്ന് ചത്തുപോയാൽ അതിനുള്ള ഇൻഷുറൻസ് കാര്യങ്ങൾ എല്ലാം സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നുണ്ട്